ഹലോ ആ ഞാനേ ട്രിവാൻഡ്രത്തുള്ള ഗൈഡ് അല്ലേ അതെ അല്ലേ ആ ഞാൻ ഈ ഞാൻ ഈ പത്തനംതിട്ടയിൽ നിന്നാണേ വിളിക്കുന്നതേ ആ ആ എനിക്ക് ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു അതെ അതെ അതെ ഇന്നലെ വിളിച്ചപ്പോൾ ബിസി ആണെന്ന് പറഞ്ഞിരുന്നു ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ ഞാനേ പത്തനംതിട്ടയിലായിരുന്നു ഞാൻ കോഴഞ്ചേരിയിലാണ് അപ്പം എനിക്കിങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെപറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ വന്നിട്ടില്ല തിരുവനന്തപുരത്തൊന്നും ആ ആ കോഴഞ്ചേരി കോഴഞ്ചേരി ആ ചെങ്ങന്നൂർ ഞങ്ങൾക്ക് അടുത്താണ് അതെ അല്ലേ ആ ഇറങ്ങണമല്ലേ ബസ്സിലാണെങ്കിൽ എവിടെയാണ് ഇറങ്ങണ്ടേ തമ്പാനൂർ അല്ലേ ആ ഓക്കെ ഓ ബസ്സ് ആയിരിക്കും അപ്പോൾ ഞാൻ തന്നെ ബസ്സ് കയറണ്ടി വരുമല്ലേ അപ്പോൾ നിങ്ങളെ എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പറ്റുക ആണല്ലേ അപ്പോൾ താങ്കൾ അവിടെ കാണില്ലേ ആ അതെ അല്ലേ

ആ ഓക്കെ അല്ല തമ്പാനൂർ വന്നിട്ട് എനിക്കൊന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വേണമല്ലോ അമ്പലത്തിൽ പോകാൻ ദർശനത്തിൻ്റെ സമയം ഉണ്ടല്ലേ അതെ അല്ലേ അവിടെ അടുത്ത് തന്നെ സ്റ്റേ ഒക്കെ കിട്ടുമോ ആണല്ലേ ആ ഹാ ഓക്കെ ഓക്കെ ആ ഹാ ഹാ ഓ ആ ഹാ ഹാ ഓ അതാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതെ അല്ലേ ആണുങ്ങൾക്ക് ആണെങ്കിലോ മുണ്ടും ഷർട്ടും അല്ലേ അതെ അല്ലേ നാല് മണിക്കല്ലാതെ പിന്നെ എപ്പോഴാണ് ദർശനം ഉള്ളത് ഉണ്ടല്ലേ ആ ഹാ അല്ല എന്നാലും ആ റേറ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാമായിരുന്നു

ആ ആ ഓക്കെ ഓക്കെ ആ ഈ താമസത്തിൻ്റെ കൂടെ തന്നെ ഫുഡും ഇൻക്ലൂഡഡ് ആയിരിക്കുമോ ഫുഡ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ ആ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ എന്നാൽ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാം ഓക്കെ ഓക്കെ ഓക്കെ